ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊക്കേ ചരിത്രം പഠിക്കാറുണ്ട് പണ്ട് തൊട്ടേ പഠിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെയാണ് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചരിത്രത്തിൽ പഠിക്കാനുള്ളത് മഹാത്മാഗാന്ധിയുടെ പലതരം ഇതുണ്ട് അതായത് അവരുടെ ഓരോ സമരമുറകളും സമരതന്ത്രങ്ങളും അങ്ങനെത്തേതൊക്കേ പഠിക്കാനുണ്ട് പിന്നെ ബ്രിട്ടീഷുകാർക്ക് എതിരേ പോരാടിയതിൻറ്റെ കാര്യങ്ങളും പഠിക്കാറുണ്ട് ഇതൊക്കെ ചരിത്രത്തിൽ പെടുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പഴശ്ശിരാജയെ കുറിച്ചാണ് നമ്മുടെ വയനാടിൻറ്റെ വീരസിംഹമാണ് പഴശ്ശി രാജാവ് അപ്പോൾ പഴശ്ശി രാജാവിനെ കുറിച്ച് ഉള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് പിന്നെ അതിനു ആസ്പദമാക്കിയിട്ടൊരു സിനിമ തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ മെയിനായിട്ട് പഠിക്കാറുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് പ്രാചീന കാലം കാലഘട്ടങ്ങളും ഇതൊക്കെ ചരിത്രത്തിൻറ്റെ ഒരു ഭാഗമായിട്ട് സാമൂഹിക ശാസ്ത്രമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതായിട്ടാണ് പഠിപ്പിക്കുന്നത് ഇത് എല്ലാം സംഭവങ്ങളെല്ലാം പഠിപ്പിക്കാറുണ്ട്